നമ്മുടെ തോട്ടത്തില് അതായത് ചെടികളുടെ ആവശ്യങ്ങളും ആവശ്യങ്ങള് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് മെയിനായിട്ട് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും നമ്മുടെ ചെടികള് കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വീടിൻ്റെ ഭംഗിക്കും കാര്യത്തിനും വേണ്ടിയാണ് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കുറെ ഫ്രൂട്ട് കാര്യങ്ങളൊക്കെ പിന്നതായത് നമുക്ക് പറയുകയാണെങ്കിൽ റംബൂട്ടാൻ ഫാഷൻ ഫ്രൂട്ട് അങ്ങനെയുള്ളതൊക്കെ നമ്മള് വീട്ടില് വെച്ച് പിടിപ്പിക്കുന്നതും നമ്മുടെ നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾക്കാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പുറമെയൊക്കെ ചെടിക്ക് അതായത് നമ്മള് പഴങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് വളവോ അതായത് അമിതമായിട്ട് വളമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചെടികളും കാര്യങ്ങളൊക്കെ അതായത് പഴങ്ങളും കാര്യങ്ങളൊക്കെയായിരിക്കും അപ്പോൾ നമ്മള് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന വളം കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതായത് നമ്മള് പഴങ്ങളും അതായത് ചെടികളും പച്ചക്കറികളും ഒക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് നല്ലതാണ് അതേപോലെ പരിസ്ഥിതിക്കും നല്ലതാണ് പരിസ്ഥിതിക്ക് ഹാനികരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല അതായത് നമ്മുടെ അതായത് നമ്മളിങ്ങനെ നല്ല നല്ല വളങ്ങളും കാര്യങ്ങളൊക്കെ ആ ഇട്ടിട്ടുണ്ടെങ്കിൽ പരിസ്ഥിതിക്ക് അത്യാവശ്യം നല്ല അതായത് പരിസ്ഥിതിയുടെ നിലനിൽപ്പിനും അത് നല്ലതാണ് അപ്പം മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പിന്നെ എന്തെങ്കിലും തോട്ടത്തില് ചെടികളൊക്കെ നടുമ്പോൾ നമ്മള് കൂടുതലും രാസവളങ്ങളൊക്കെ ഉപയോഗിക്കാതെ നോക്കുക